ഞാൻ ഈ ഇടയ്ക്ക് രണ്ട് ബൾബ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സോളാർ ബൾബ് എന്നു പറഞ്ഞിട്ടാണ് അവർ അതില് ഏഡ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സോളാറിൻ്റെയാണല്ലോ നമുക്കത്യാവശ്യം ചിലവ് കമ്മിയാക്കാമല്ലോ പവറൊക്കെ കുറയ്ക്കാമല്ലോയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ സാധനം ഓർഡർ ചെയ്തത് അറുന്നൂറ്റമ്പത് ഉറുപ്പിക ആണ് ഒരു ബൾബിന് അവർ വില പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഓഫറും കഴിഞ്ഞിട്ട് അറുന്നൂറ്റിയിരുപത്തഞ്ച് രൂപയ്ക്കാണ് അത് കിട്ടിയത് അപ്പോൾ രണ്ടെണ്ണത്തിന് വന്നിട്ട് ആയിരത്തിയിരുന്നൂറ്റമ്പത് ഉറുപ്പിക ഏകദേശം പൈസ വന്നു അപ്പോൾ കുഴപ്പമില്ല സാധനം കണ്ടപ്പോൾ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവരതിൽ ഡെമോ കാണിച്ചപ്പോൾ നിലത്ത് വീണാലും പൊട്ടില്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു എൽ ഇ ഡി പോലത്തെ കവറും കാര്യങ്ങളും ആയിരുന്നു സംഭവം കുഴപ്പമില്ലാണ്ട് ഞാൻ പിന്നത് ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്തുയെന്ന് പറഞ്ഞാൽ ഗേറ്റിന്റവിടെ വെക്കാനാണ് ഉദേശിച്ചത് അപ്പോൾ അതായത് പകൽ ഫുള്ളായിട്ട് ചാർജാവുകയും ചെയ്യും രാത്രിയിൽ ഫുൾ കത്തിക്കിടക്കുകയും അങ്ങനെ ഒരു രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഡെമോയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിന്നെ സെൻസറൊക്കെ ഉണ്ടായിരുന്നു അവർ സെൻസർ അതായത് ആൾക്കാർ വരുമ്പോൾ ലൈറ്റ് കത്തുക പിന്നെ പോയി കുറച്ച് നേരം കഴിഞ്ഞാൽ കെടുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ നോക്കുമ്പോൾ എന്താണ് ഇതിൽ വന്ന കാര്യമിതിൽ നോക്കുമ്പോൾ ഒരു സാധനം ഉണ്ടായിരുന്നില്ല ഇത് സോളാർ ഒരു ദിവസം ചാർജ് ആയി രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ അത് പിന്നെ ചാർജാവണില്ല അത് കത്തണില്ല നല്ല എന്താ പൈസ പോയത് മിച്ചം ദേ അവസാനം പത്ത് ദിവസത്തിനുള്ളിലത് റിട്ടേൺ ആക്കുകയും ചെയ്തു